കൃഷീൽ വളരെ അധികം സാങ്കേതിക മാറ്റങ്ങളാണ് ഇന്നീ കാലത്ത് വളർന്ന് വന്നു കൊണ്ടിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ മനുഷ്യൻമാരെല്ലാം നെയ്ത് കൊയ്തൊക്കെയായിരുന്നു ചെയ്ത് കൊണ്ടിരുന്നത് പക്ഷേ ഇന്നീ കാലത്തു മെഷീനുകളൊക്കെയാണ് കൂടുതലും കൃഷിയിൽ ഏർപ്പെട്ടോണ്ടിരിക്കുന്നത് പണ്ടെന്ന് വച്ച് കഴിഞ്ഞാൽ തൂമ്പ അങ്ങനെയൊക്കെ വച്ച് മനുഷ്യമാർ എല്ലാവരും കുടുംമ്പ സമേതം എല്ലാരും കൂടി കൃഷിയിലൊക്കെ ബന്ധപെട്ടിരിക്കുകയും പക്ഷെ ഇന്ന് ഈ കാലത്തിപ്പോൾ മെഷീനുകളായി യൂസ് ചെയ്ത് ഒരാൾ ചെന്ന് അത് പറമ്പുകളിലൊക്കെ പോയത് നെയ്ത് കൊയ്തൊക്കെയാണ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് പിന്നെ വിളവ് വിളവ് വികസനം മുതൽ മുതൽ കന്നുകാലി വരെ പരിപാലിക്കാൻ വരെ കൃഷിയുടെ എല്ലാ ഭാഗങ്ങളിലും സ്റ്റെമ്മ് നിലവിൽ വന്നിട്ടുണ്ട് പിന്നെ വിളവുകളെ കുറിച്ചും മണ്ണ് പരിപാല ത്തിനെ കുറിച്ചും എല്ലാം കൂടുതൽ അറിയാൻ ഈ ഈ ടെക്നോളജി നമ്മുടെ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എന്താണ് കൃഷി കൃഷികൾ മാത്രല്ല അത് കൃഷികൾ കഴിഞ്ഞിട്ടുള്ള വാഷിങ്ങും അതിനസരിച്ചുള്ള പായ്ക്കേജിങ്ങും എല്ലാം ഇപ്പം കൂടുതൽ ടെക്നോളജീസ് എല്ലാം വർദ്ധിച്ച് വന്നിട്ടുണ്ട് കൃഷികൾ പണ്ടൊക്കെ എന്ന് വച്ച് കഴിഞ്ഞാൽ വെയിലത്തുമെല്ലാമൊക്കെയാണ് ആൾക്കാർ ചെയ്തു കൊണ്ടിരുന്നത് ഇപ്പോൾ അതിനനുസരിച്ചുള്ള മെഷീനുകളും എല്ലാമുള്ളത് കാരണം വെയിൽ പോലും കൊള്ളാതൊക്കെയാണ് കൊയ്തൊക്കെയെടുക്കുന്നത്